ഹലോ ആ ഇത് തയ്യൽ ആ ഞാനേ ഇന്നാൾ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ രണ്ട് ജുബ്ബ തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ആ അപ്പം അതാ ഞാൻ എനിക്ക് ആണെങ്കിലേ അത് ഞായറാഴ്ച് വൈകിട്ട് അത് രണ്ടും തയ്ച്ച് തരണമല്ലോ അത്യാവശ്യമാണ് അതെല്ലാം ശരിയായിരിക്കുവാന്നോ ശരിയായിരിക്കുവാന്നോ ഇതിനിടക്ക് എവിടെ കല്യാണം ഇത് നമ്മൾ ഞാനിത് ഒരാഴ്ച്ച മുമ്പേ തന്നതല്ലേ എനിക്കിത് അത്യാവശ്യം ഉണ്ടായിട്ടാ കാരണം ആ ഇതിപ്പം എനിക്ക് എങ്ങനെ ആയാലും ഇനിപ്പം ഒരു ദിവസം ഇനിപ്പം നാളെയും മറ്റന്നാളും കൂടെ ഉണ്ടല്ലോ അപ്പം രണ്ട് ദിവസം ഉണ്ട് അപ്പം ഇത് ഉത്സാഹിച്ചാൽ കാര്യം നടക്കും എനിക്ക് വേറെ അന്ന് പ്രോഗ്രാം ഉള്ളതാ അതൊരു ഫങ്ങ്ഷൻ ഉള്ളതാ അല്ല എനിക്ക് ആ ഫങ്ങ്ഷനില് സംഗതി വേറെ ഡ്രെസ്സും ഇല്ല അപ്പം ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുവാ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെത് തരണം അതിപ്പോൾ പൈസ ഒക്കെ വേണമെങ്കിൽ കൂടുതൽ അങ്ങ് തരാം അത് അത് ആ അതിപ്പം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്ത് മറ്റ് കല്യാണ ആവശ്യം അത് എത്രാം തീയതിയാ കല്യാണം അവരുടെ ഇത് ആ രീതിയിൽ ഇടക്ക് കല്യാണത്തിൻ്റെ അവിടെ കൊണ്ട് വന്ന് സാധനങ്ങളക്കെ കൊണ്ട് തന്നത് ഇതാര് ഇത് ഇത് ഇത് അവിടുത്തെ ഇത് അടുത്തുള്ള കല്യാണമാന്നോ ആളുകളാന്നോ അതോ ആ എന്തായാലും ഇപ്പം നമ്മളെ ഉപേക്ഷിക്കരുത് നമുക്ക് അത്യാവശ്യം ആണ് ഇത് വേറേ ഡ്രസ്സ് ഒന്നും ഇല്ല ഇത് അല്ല ഇതിപ്പം ആ രണ്ടും വേണം രണ്ട് പ്രാശ്യത്തെ പരിപാടിക്കല്ലേ രണ്ട് കളർ അല്ലേ അപ്പം അതൊക്ക ഇട്ടുകൊണ്ട് വന്ന് പരിപാടിയൊക്കെ ഒന്ന് ആകുമ്പം നേരത്തെ പിള്ളേരൊക്കെ വരുന്നതാ ആ ആ അപ്പം അത് നമ്മുടെ ഈ ബർത്ത്ഡേ ആഘോഷമാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ വരുമ്പഴത്തേക്കും നമ്മളിപ്പം പുതിയൊരു ഡ്രസ്സ് ആയിക്കോട്ടേ എന്ന് വിചാരിച്ചാൽ അത് അത് പോയി അത് അവിടെ തന്നെ തന്നത് അപ്പം ഇത് നേരത്തെ കൊണ്ടു തന്നതല്ലേ ഞാൻ അത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് തയ്ച്ച് കാണുവായിരിക്കും എന്ന് ആ ആ ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഇല്ല എനിക്ക് ഇപ്പം അല്ലാതെ ഈ ഈ ഡ്രസ്സ് തന്നെ ഇടണം ഇതൊരു ഡ്രസ്സ് കോഡ് ആയതുകൊണ്ടേ എല്ലാവരും ഇത് ഈ സെറ്റപ്പിലാ വരുന്നത്

ആ അപ്പം സമയം ആയില്ലല്ലോ